ഞാൻ പൊതുവേ തയ്ക്കാൻ നേരത്ത് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള കളറുകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇളം നീല അതുപോലെത്തന്നെ ഇളം റോസ് കളറ് അതുപോലെത്തന്നെ ഇളം മഞ്ഞ അങ്ങനെ ലൈറ്റ് കളറുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് കളറുള്ള ഡ്രസ്സുകളാണ് ഞാൻ കൂടുതലും തയ്ക്കാറുള്ളത് പിന്നെ എനിക്കങ്ങനെ വലിയ ഫാഷൻ ഫാഷൻ ഭ്രമം ഉള്ളയാളല്ല ഒരുപാട് ഫാഷനുകളോടൊന്നും വലിയ ഭ്രമം ഒന്നുമില്ല ന്യായമായിട്ടുള്ള ഒരു അതായത് മറ്റുള്ളവർക്കൊരു കണ്ടാലൊരു എന്താ പറയുക സമൂഹത്തിൽ ഇന്ന് മാന്യമായിട്ട് ഇട്ടു നടക്കാൻ കൊള്ളാവുന്ന തരത്തിൽ നല്ല നല്ല ഡ്രസ്സുകൾ തയ്പ്പിച്ചിടുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ കൂടുതൽ കളറിനോട് വലിയ ഒരു ഭയങ്കര താല്പര്യമോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഇളം കളറുകളാണെങ്കിലൊക്കെ ഇഷ്ടം ലൈറ്റ് കളർ ആയിട്ടുള്ള എല്ലാം ധരിക്കാനാണിഷ്ടം ഫാഷനുകളങ്ങനെ ഒത്തിരി പുതിയ പുതിയ ഫാഷനുകളൊന്നും നോക്കി നോക്കി അങ്ങനെ തയ്ക്കണം നിർബന്ധം ഒന്നും ഇല്ല അത്യാവശ്യം കൈക്ക് നീളവും കാലും കൈയൊക്കെ കവറ് ചെയ്ത് ശരീരം കവറ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളിടുന്നതാണെനിക്കിഷ്ടം ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് കൂടുതൽ തയ്പ്പിക്കുന്നത് നിറങ്ങളും നിറങ്ങളോടും അങ്ങനെ നിർബന്ധ ബുദ്ധികളൊന്നും ഇല്ല ഒത്തിരി കടുപ്പം ഉള്ള കളറുകളൊന്നും ഞാനിടാറില്ലെന്നു മാത്രമേ ഉള്ളൂ ഇളം കളറുകളൊക്കെ ഇഷ്ടമാണ് ഞാൻ കോട്ടൺ വസ്ത്രങ്ങളാണ് എനിക്ക് കൂടുതലിഷ്ടം കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ തയ്പ്പിക്കാനാണ് കൂടുതലിഷ്ടപ്പെടുന്നത് കോട്ടൺ നൈറ്റികളും അതുപോലെത്തന്നെ കോട്ടൺ ചുരിദാറുകളും കോട്ടൺ സാരികളും അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ കോട്ടൺ വസ്ത്രങ്ങളാണ് കൂടുതൽ സൗകര്യവും ഭംഗിയും സൗകര്യവും അതുകൊണ്ട് അങ്ങനെ ഉള്ള വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കാറുണ്ട് കുട്ടികൾക്കും കളറ് ഇളം കളറുകളും അങ്ങനെ തയ്പ്പിച്ചു കൊടുക്കുന്നത് അവർക്കതൊക്കെ ഇഷ്ടമാണ് ഉടുപ്പുകളും അതുപോലെത്തന്നെ ചുരിദാറുകളും ഒക്കെ തയ്പ്പിച്ചു കൊടുക്കാറുണ്ട് അതൊക്കെ അവർക്കങ്ങനത്തെ കളറുകള് അങ്ങനൊക്കെ തയ്പ്പിക്കുന്നതൊക്കെ ഇഷ്ടമാണ് എന്തെങ്കിലും ഒക്കെ ഒരു ആൾക്കാർക്ക് മറ്റുള്ളവർ തയ്ക്കാൻ വരുമ്പം ഞാനവർക്ക് ഇഷ്ടമുള്ളതൊക്കെ തയ്ച്ച് കൊടുക്കും അവർക്കിഷ്ടം ഉള്ള കളറുകള് അവരേത് ഏത് കളറ് പറഞ്ഞാലും ആ കളറ് പറയുന്ന കളറിലൊക്കെ ഉള്ള തുണികൾ ഞാൻ തയ്പ്പിച്ച് കൊടുക്കാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ എൻ്റെ എൻ്റേതായ കാര്യത്തിന് എൻ്റെ ഡ്രസ്സുകള് തയ്ക്കുമ്പോൾ ഞാൻ കളറ് കുറഞ്ഞ ഡ്രസ്സുകളാണെടുത്ത് തയ്പ്പിക്കുന്നത് തയ്ക്കാൻ കൊണ്ടുവരുന്നവർ അവർക്കിഷ്ടം ഉള്ള കളറുകളാണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് തയ്ച്ച് കൊടുക്കും എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാനും തയ്ക്കും അങ്ങനെയാണ് അപ്പം എനിക്ക് അങ്ങനെ ഒത്തിരി കളർഫുള്ള് ആയിട്ടുള്ള ഡ്രസ്സുകള് വേണമെന്ന് താല്പര്യമൊന്നും ഇല്ല കുറച്ച് കളറ് കുറഞ്ഞ ഡ്രസ്സുകളൊക്കെയാണിഷ്ടം അതുപോലുള്ള പാറ്റേണുകളൊക്കെ നോക്കി ഞാനെടുത്ത് തയ്ക്കും തയ്ക്കാൻ വരുന്നവരുടെ അടുത്ത് ഒത്തിരി പലതരത്തിലുള്ള ഡ്രസ്സുകൾ കൊണ്ട് പലതരത്തിലുള്ള കളറുകൾ കൊണ്ടുവരും അവർക്കിഷ്ടമുള്ളത് ഏത് രീതിയിലാണോ അങ്ങനെ തയ്ച്ച് അവർക്ക് കൊടുത്ത് വിടും കുർത്തിയാണ് കൂടുതൽ മെയ്ൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് കുർത്തികളോടാണിഷ്ടം കുർത്തി തയ്പ്പിക്കും അത് നല്ലപോലെ കോളറ് ഒക്കെ വെച്ച് കുർത്തി തയ്ക്കും അത് ഇളം കളറുകളും ഒക്കെ വെച്ച് തയ്ച്ച് ഉപയോഗിക്കുന്നത് നല്ല കോട്ടൺ ഡ്രസ്സുകളാകുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് എത്രനാൾ ഉപയോഗിക്കുകയും ചെയ്യാം ചൂടെടുക്കാതിരിക്കുകയും ചെയ്യും